കുട്ടികൾ ഭാവിയിലെ ഉത്തരവാദിത്ത്വപ്പെട്ട പൗരന്മാരായി തീരുന്നതിനു വേണ്ടി അവർക്ക് വാർത്തയിലായിട്ട് വാർത്തയിലവർക്ക് താല്പര്യം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി നമ്മൾ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരവബോധം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ടത് വളരെയേറെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ഓരോ സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ അവർക്കു വേണ്ടി അതിൻ്റെ ആ അവബോധത്തെക്കുറിച്ച് ആ വാർത്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവർ ചെറുപ്പത്തിലേ തന്നെ അവർ വളർന്നു വരുന്ന ആ സാഹചര്യങ്ങൾക്ക് ആദ്യം തന്നെ അവർ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്കത് മനസ്സിലാക്കി അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളത് അവർക്കു മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി നമ്മൾ പത്രം മാധ്യമ പത്രങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതു പോലെ തന്നെ ഓരോ ഇതിനെക്കുറിച്ചുള്ള അറിവും ഞാൻ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങൾ ഇവയെല്ലാം അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് അവർ ഭാവിയിൽ ഒരു നല്ല നല്ല ഉത്തരവാദ പൗരന്മാരായി തീരുന്നതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഒരു നല്ല കുട്ടികളായിട്ട് വളർന്നു വരു വളർന്ന് വരേണ്ടതുമായിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകത്ത് നടക്കുന്നതായ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരവബോധം ആവശ്യമായി വരുന്നുണ്ട് നമ്മുടെ ഓരോ രാജ്യങ്ങളിലെ എന്താണ് നടക്കുന്നതെന്നും നമ്മളുടെ ഇൻഡ്യയിൽ നമ്മൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മളദിവസിക്കുന്ന നമ്മളുടെ സംസ്ഥാനത്ത് നമ്മളുടെ നാട്ടിൽ ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനു വേണ്ടി എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് കുഞ്ഞുങ്ങളിലൊരു അറിവ് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി അവർക്ക് വാർത്തയിൽ അവർ താല്പര്യം കാണിക്കണം വാർത്തയാണ് പലപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വാർത്ത വളരെയേറെ സഹായകരമാണ് ഓരോ നാട്ടിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും അതു പോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വിജയ പരാജയങ്ങളെക്കുറിച്ചും എല്ലാം വാർത്തയിലൂടെ ക കാണുവാനും കേൾക്കുവാനുമായിട്ട് കുട്ടികൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വാർത്ത അവർ മനസ്സിലാക്കുന്നതിനു വേണ്ടി അവരെ സഹായിക്കുന്ന പത്രങ്ങളും അതു പോലെ തന്നെ സോഷ്യൽ മീഡിയായ് അതു പോലെ തന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഓരോ മാധ്യമങ്ങളും എല്ലാം ഇതിന് വളരെയേറെ സഹായകരമാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പത്രം വരുത്തുക അത് കുഞ്ഞുങ്ങളത് വായിക്കുന്നതിനു വേണ്ടി നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനു വേണ്ടി പ്രത്യേകം അതിനു വേണ്ടി അവർക്ക് സമയം നമ്മൾ ക്രമീകരിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അതു പോലെ തന്നെ അവർക്ക് അവരുടെ ഗൈഡൻസ് അവരുടെ പഠന പഠന മേഖലകളിൽ എല്ലാം അവർക്ക് ഒരു അവ പഠന മേഖലകളിലെല്ലാം അവർ വിജയിച്ച് വരണമെങ്കിൽ അവർക്ക് അതിനൊക്കെയുള്ള കുറിച്ചുള്ള അറിവു വേണം അപ്പോൾ അതെല്ലാം ഈ വാർത്തയിലവർ അതൊക്കെ ഈ വാർത്ത കൂടുതൽ കേൾക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ അറിവുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയായിട്ടുള്ള ഓരോ സഹായങ്ങളും നമ്മളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക അതു പോലെ തന്നെ ഇംഗ്ലീഷിൽ അവർക്കു പരിജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് ഇംഗ്ലീഷ് പത്രം നമുക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങൾ ഇംഗ്ലീഷ് മാസികകൾ ഇവയൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവയിൽ നിന്നൊക്കെ കിട്ടുന്ന വാർത്തകൾ ഇവരുടെ ജീവിതത്തിൽ അവരെ അവർക്ക് കൂടുതൽ അറിവ് നേടുന്നവരായിട്ട് അവർക്ക് സാധിക്കും അത് അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് കൂടുതൽ വിജയങ്ങളിൽ എത്തിച്ചേരുവാനായിട്ടും കൂടുതലും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ടും അവർക്ക് സാധിക്കും അപ്പം ഇതിന് വേണ്ടിയൊക്കെയായിട്ടുള്ള ഓരോ പരിശ്രമ ഫലമായിട്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മളൊക്കെ ഈ വാർത്ത കേൾക്കുന്നതിലൂടെ വാർത്ത കാണുന്നതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവരവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ കൈ അവർക്ക് ഉണ്ടാകുന്ന അറിവിനെക്കുറിച്ചും ജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മളവർക്ക് പറഞ്ഞു ബോധ്യമാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളാദ്യം മാതാപിതാക്കൾ ആദ്യം അതിനു വേണ്ടി പരിശ്രമിക്കുക അവരാദ്യം പത്രം വായിക്കുവാനും നല്ല മാസികകള്ള് നല്ല ന്യൂസുകളൊക്കെ കേൾക്കുവാനും ഒക്കെയായിയിട്ട് അവര് തയ്യാറാണ് അതുപോലെ തന്നെ ടീ വി ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലെല്ലാം നമ്മൾ വാർത്ത കേൾക്കുന്നവരായിട്ടും അതു നമ്മൾ ഷെയർ ചെയ്യും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഇതിനോടുള്ള ഒരു ജിജ്ഞാസ കൂടുതലായിട്ടുണ്ടാകുകയും അവരും ഈ പത്രങ്ങൾ വായിക്കുകയും അറിവ് നേടുവാനായിട്ട് അവരും ആഗ്രഹിക്കും ജീവിതത്തിൽ ഉയരങ്ങളിൽ ആരെ എത്തിച്ചേരണമെന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഓരോ കാര്പത്രം ഈ പാത്രങ്ങളൂടെ ലഭിക്കുന്ന അറിവുകളും എല്ലാവർക്കൊരു പ്രചോദനമായിട്ടുണ്ട് അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവിയിൽ ഉത്തമ പൗരന്മാരായി രാ വീടിനുപകാരികളായി നാടിനുപകാരികളായി രാഷ്ട്രത്തിന് ഉപകാരികളായിട്ട് ഒക്കെ മാറണമെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവു വേണം അവർക്ക് ആ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം വേണം അവബോധം വിവേകം എല്ലാം അവർക്കാവശ്യമുണ്ട് അതേ വാർത്തയിലൂടെ ഓരോ കാര്യങ്ങളിൽ ഇന്ന് വാർത്തയിൽ ഓരോ കാര്യങ്ങൾ എന്ത് ഒരു കുട്ടി ഏതു രീതിയിൽ എത്തിച്ചേരണമെന്ന് ഏതു രീതിയിൽ വേണമെങ്കിലും അവരെ സഹായിക്കുവാനായിട്ട് ഓരോ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും അത് വായിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഒരു ജ്ഞാനം ലഭിക്കും അതിനു വേണ്ടി മാതാപിതാക്കളായിട്ടുള്ള മാതാപിതാക്കളാദ്യം ഈ വാർത്ത കേൾക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും എല്ലാം അവരെ താല്പര്യം പ്രകടിപ്പിക്കുക കുടുംബത്തിലൊന്നിച്ചിരുന്ന് ടീ വിയിൽ വരുന്ന വാർത്തകൾ കാണുക അത് കുഞ്ഞുങ്ങളുമായിട്ട് കുട്ടികളോട് പറയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ അതു പോലെ തന്നെ സ്കൂളുകളിലൊക്കെ പത്രങ്ങൾ വരുത്തുക അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വാർത്ത വായിക്കുവാനായിട്ടും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാനായിട്ടും അതിന് എല്ലാം അവരെക്കൊണ്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ഈ തെറ്റായ വാർത്തകളിലേക്കും തെറ്റായ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ജീവിതത്തിൽ ഓരോ വ്യക്തികളും അറിവ് നേടുമ്പോഴാണല്ലോ അവരെയൊക്കെ അവരുടെ ജീവിതത്തിൽ വിജയങ്ങളിലെത്തിച്ചേരുന്നത് അബ്ദുൽ കലാം നമ്മുടെ മുൻ രാഷ്ട്രപതിയ അബ്ദുൽ കലാമൊക്കെ ഇത്രയേറെ ഉയരങ്ങളിലെത്തിച്ചത് അദ്ദേഹം നേടിയെടുത്ത ജ്ഞാനത്തിലൂടെയും അറിവിലൂടെയുമാണ് അപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ ജ്ഞാനവും അറിവും ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് അവർക്ക് പത്ര മാധ്യമങ്ങളും എല്ലാം വളരെയേറെ അവരെ സഹായിക്കുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള പടികളായിട്ട് ആദ്യം കുടുംബങ്ങളിൽ നിന്നും തന്നെ തുടങ്ങി പിന്നെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ നിന്നും അതു പോലെ തന്നെ അവരായിരിക്കുന്ന ഓരോ മേഖലകളിലും അവർ അറിവ് നേടിയെടുക്കുവാനായിട്ട് അവർ വളരെയേറെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി കുടുംബങ്ങളിലും സ്കൂളുകളിലും എല്ലാം ഈ പിന്നെ വാർത്തകളുടെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർ അതു കേൾക്കുവാനും ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ അത് നേടിയെടുക്കുവാനും വേണ്ടിയുള്ള ഒരു പ്രചോദനമായിട്ട് ഈ വാർത്തകൾ വാർത്തകൾ വാർത്തകൾ അവർക്ക് ഉപയോഗപ്രദം അതിന് അവർക്കതിനു വേണ്ടി താല്പര്യം ലഭിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം അവർ അവരായിരിക്കുന്ന ഓരോ സമൂഹത്തിലും അവരെ അതിനു വേണ്ടി അവർക്കു വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്